കേരളത്തിൽ കൂടാനും ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് വാഗമൺ വാഗമൺ നമ്മൾ പോയിട്ടുണ്ട് വാഗമൺ പോയിട്ട് നമുക്ക് നല്ല നല്ല അവിടെ പോയപ്പോൾ ഉള്ള അവിടുത്തെ പൈൻ മരത്തിൻ്റെ കാട്ടിലൂടെയുള്ള നടത്തവും അതുപോലെ ഓഫ്റോഡിൽ ഒറ ട്ര ജീപ്പിനകത്തുള്ള യാത്ര അതൊക്കെ വളരെ രസകരമായിരുന്നു നമ്മൾ ഫാമിലി എല്ലാരുമൊത്ത് ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് നമ്മൽ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ പൈൻ മരത്തിൻ്റെ ഇടയിൽക്കൂടി നടക്കാൻ നല്ല നല്ല താ നല്ല സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങുന്നതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അതുപോലെ നല്ല ഒരു ചെറിയ തണുപ്പും നമുക്ക് ആ വാഗമണിൽ നിന്ന് കിട്ടുന്നു വാഗമണിൽ നിന്ന് കിട്ടുന്നു നടക്കാൻ പൈൻ മരത്തിനിടയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുവായിരുന്നുണ്ട് പിന്നീട് നമ്മൾ താമസിക്കേണ്ടത് റിസോർട്ടിലാണ് അവിടെ നമ്മൾ താമസിച്ചിരുന്നത് ആ റിസോർട്ടിൽ റിസോർട്ടിൽ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ലൊരു റിസോർട്ട് ആയിരുന്നു അവിടുത്തെ ഭക്ഷണം ഒക്കെ നല്ല രീതിയിലായിരുന്നു ആ റിസോർട്ടിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തന്നെ വാഗമണ്ണിനെ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു കാണാൻ സാധിക്ക് കാണാൻ സാധിക്കാരുന്നു വാഗമൺ യാത്രയാണ് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ പറയുന്നത്